കേരളത്തിലെ പരമ്പരാഗത വസ്ത്രങ്ങളും വസ്ത്രധാരണരീതികളും എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് ആദ്യ കാലഘട്ടത്തിലൊക്കെ ആദ്യ കാലഘട്ടം എന്ന് പറയണ്ട നമുക്കൊരു മീഡിയം ടൈമെന്ന് പറയാം ആ ഒരു ടൈമിലൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും സാരി ചുരിദാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് കൂടുതലും അതായത് ഗേൾസ് അതായത് പെണ്ണുങ്ങള് കൂടുതലും ഉപയോഗിക്കുന്നത് സാരി ചുരിദാറ് പിന്നെ പാവാടയും ബ്ലൗസും മിഡിയും ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ കുട്ടികളാണെങ്കിൽ ഉടുപ്പ് പിന്നെ ഷർട്ടും മുണ്ടും ഷർട്ടും പാൻറ്റും അങ്ങനെയൊക്കെയുള്ളത് പിന്നെ ആണുങ്ങളെ പറയുവാണെങ്കിൽ ഷർട്ടും മുണ്ടും അതായത് പിന്നെ അല്ലെങ്കില് ഷർട്ട് പാൻറ്റ് അങ്ങനുള്ളതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ജനറേഷൻറ്റെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ പെണ്ണുങ്ങള് സാരികള് അതായത് സാരി ചുരിദാറ് പിന്നെ ജീൻസും ടോപ്പും അതായത് ആണുങ്ങൾ ഇടുന്ന എല്ലാം ഏകദേശം പെണ്ണുങ്ങളും ഇടാൻ ഇടുന്നുണ്ട് അപ്പം ആ ഒരു മാറ്റം നമുക്കിപ്പം അറിയാൻ സാധിക്കും പിന്നേന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മമാരൊക്കെയാണെങ്കില് മുണ്ടും നേരിയതെന്നുമൊക്കെ പറയുന്ന അങ്ങനൊരു സംഭവം അതായത് സെറ്റ് മുണ്ട് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കല് അപ്പോൾ ഓരോരോ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് വസ്ത്രധാരണ രീതികള് നടത്തികൊണ്ട് പോവുന്നത്